ആരോഗ്യ പരിപാലനമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മലിനജലങ്ങള് പുറത്തേക്ക് ഒഴുക്കിവിടുന്നത് റോഡിലേക്കൊഴുക്കി വിടുന്നത് എല്ലാവരെയും ബാധിക്കുന്ന അങ്ങനെ അങ്ങനെ ചെയ്യരുത് അപ്പം അതിനെ തടയാന് വേണ്ടിയിട്ട് ആരോഗ്യപരമായിട്ട് കാരണം ഇതൊക്കെ ഹെൽത്തിനെ ദോഷമായിട്ട് ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കണ്ടില്ലേ പണ്ട് ഈ വർഷം തന്നെ കൊച്ചിയില് വേസ്റ്റ് കത്തിച്ചിട്ട് എത്ര പേര് എന്തൊരു ദ്രോഹമാണ് നമ്മള് ഇത് തലമുറയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോള് കുറെ ഇതുണ്ട് അതിനെതിരെ പിന്നെ കമ്പോസ്റ്റ് ഇല്ലാത്തവർക്ക് കമ്പോസ്റ്റ് ഇതാക്കാം അങ്ങനെ അപ്പം നമ്മളെന്താണ് ചെയ്യുക പ്ലാസ്റ്റിക് കത്തിക്കാതിരിക്കാൻ ഹരിത സേനയ്ക്ക് ഇതുണ്ട് കേരളസേനയുടെ അവര് കളക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള നല്ല നല്ല പരിപാടികള് പഞ്ചായത്തുതലത്തില് കൊണ്ടുവരുന്നുണ്ട് അപ്പം നമ്മുടെ ആരോഗ്യവും നമ്മുടെ പരിസ്ഥിതിയുമൊക്കെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ ഇതൊന്നും മലിനജലങ്ങളൊന്നും വേസ്റ്റായിട്ട് തള്ളിക്കളയാതെ അതൊക്കെയൊരു സ്ഥലത്ത് അത് അത് മണ്ണിലേക്കോ അല്ലെങ്കില് അതിങ്ങനെ ഇതാക്കിയെടുക്കുന്നത് വളരെ നല്ലൊരിതാണ്